അതെ അതെ സൂപ്പർ മാർക്കറ്റാണ് ഓഫറുണ്ടല്ലോ എന്താണ് വേണ്ടത് ആ അതെ പച്ചക്കറികൾക്ക് നല്ല ഓഫറുണ്ട് രണ്ടു കിലോ പഞ്ചസാര എടുത്താലൊക്കെ അമ്പത് രൂപയേ ഉള്ളൂ ആ അത് ഓക്കെ ഇവിടെ ഡെലിവറി സൗകര്യം ഉണ്ട് മാഡം അതെ അത് എത്രയാണെന്ന് വച്ചാൽ നിങ്ങൾക്ക് വേണ്ടത്ര എടുക്കാം

ആ നല്ല ഡിസ്ക്കൗണ്ട് ഉണ്ട് എല്ലാത്തിനും

ആഴ്ച്ചയിൽ രണ്ട് ദിവസമാണ് ഇത് ഡിസ്ക്കൗണ്ട് ഇങ്ങനെ

ഓക്കെ ഒരു രാവിലെ മുതൽ ഒരു ഒമ്പത് മണി വരെ ഉണ്ട് രാത്രി ഒമ്പത് മണി വരെ അതെ നല്ല ഫ്രഷാണ് മാഡം ആ നിങ്ങൾക്ക് എന്താ വേണ്ടതെന്നു വച്ചാൽ നിങ്ങൾക്കുതന്നെ തിരഞ്ഞെടുക്കാവുന്നതാണ് ഓക്കെ വേറെയെന്തെങ്കിലും വേണോ ഇങ്ങനത്തെ ഒക്കെ കണ്ടിടുണ്ട് പഞ്ചസാരയ്ക്ക് ഓഫർ ഉണ്ട് ആഴ്ച്ചയിൽ രണ്ടു ദിവസം ഇവിടെയുള്ള എല്ലാ സാധനങ്ങൾക്കും നല്ല ഓഫർ ഉണ്ട്

ചൊവ്വയും വ്യാഴവും

ഓക്കെ താങ്ക് യു